ആദ്യമായിട്ട് ചിത്രം വരയ്ക്കുന്നവർക്ക് ഉള്ള പ്രശ്നം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് വരയ്ക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ പാഷനാണെങ്കിൽ നമ്മളത് നന്നായിട്ട് വരയ്ക്കാൻ ശ്രമിക്കും പക്ഷേ ഇതു വെറുതെ വരയ്ക്കണം എന്നു തോന്നുന്നൊരാൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം വരയ്ക്കാൻ ഇഷ്ടമില്ലാത്തൊരാൾ വരച്ചാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതേ സമയം എനിക്കിത് വരയ്ക്കണം എനിക്കിത് മെച്ചപ്പെടത്തണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നൊരാൾ ആണെങ്കിൽ ഇത് നന്നായിട്ട് വരയ്ക്കാൻ കഴിയും അതുപോലത്തന്നെ ഇങ്ങനെ വരയ്ക്കുന്നവർക്ക് സാധാരണ സംഭവിക്കാറുള്ള ചില വീഴ്ച്ചകൾ ഒഴിവാക്കാനുള്ള ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി വരച്ച് പഠിക്കുക ഇപ്പോൾ ഒന്ന് റെഡി ആയില്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് വരച്ച് വരച്ച് ശ്രമിച്ച് പഠിക്കുക ഇപ്പോഴൊരു ഒരാളെ വരയ്ക്കുന്നെങ്കിൽ ഒരു ജീവീനെ വരയ്ക്കുന്നെങ്കിൽ ഒന്ന് വരച്ചു റെഡിയായില്ലെങ്കിൽ വീണ്ടും വീണ്ടും വരച്ച് വരച്ച് ശ്രമിക്കുക അതാണ് ചെയ്യാൻ ഏറ്റവും നല്ല വഴി കാരണം അല്ലാണ്ട് നമുക്കിങ്ങനെ ഒര് ഇപ്പം നേരെ നമുക്ക് നമ്മളിപ്പം ജനിച്ചതേ ഇങ്ങനെ വലിയ ഒരു കലാകാരനായിട്ടല്ലല്ലോ ഇപ്പം നമ്മൾ വരയ്ക്കാൻ തുടങ്ങുമ്പം നമുക്ക് ആദ്യം കുറേ വീഴ്ച്ചകളൊക്കെ സംഭവിക്കാം പക്ഷേ വരച്ച് വരച്ച് നമ്മൾ നമ്മുടെ പാഷനിലേക്കെത്താൻ ശ്രമിക്കണം അതാണ് ഒരു കലാകാരൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം